കേരളത്തിലെ കല കരകൗശല മേഖല കരകൗശല ഉപഭോഗത്തിലെ ലഭ്യത അല്ലെങ്കിൽ വിലയുടെ പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ധാരാളം ഈ മേഖലയിലൊരുപാട് കാര്യങ്ങൾ ഉണ്ട് മൺപാത്രങ്ങളാണെങ്കിലും ചിരട്ട വച്ചുള്ള ഉപകരണങ്ങളാണെങ്കിലും ഗ്ലാസ്സുകൊണ്ടുള്ള കൊണ്ടുള്ള ഉപകരണങ്ങളാണെങ്കിലും അങ്ങനെ പല വ്യവസായങ്ങൾ കേരളത്തിലുണ്ട് പക്ഷെ ഇവയെല്ലാം പ്രോത്സാഹിപ്പിക്കുവാൻ ഉള്ളത് സാമ്പത്തികപരമായിട്ട് നമുക്ക് വളരെ പിന്നോക്കമാണ് ഈ മേഖലയിലുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാട്ടിലും വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലും വിലയുള്ളത് അതുതന്നെയുമല്ല വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സാധങ്ങൾക്കൊക്കെ വളരെ അധികം പ്രാധാന്യമാണ് അവിടെയുള്ള ആൾക്കാർ നൽകുന്നത് നമ്മുടെ നാട്ടിലുള്ളവരെക്കാട്ടിലും ഇന്നത്തെ തലമുറ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള നമ്മളെ സാധനങ്ങളിൽ നിന്നും വ്യതിചലിച്ച് മറ്റുള്ള സ്റ്റീല് അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളിലേക്ക് ആണ് പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലന്യം നിന്ന് പോകുകയാണ് ചെയ്യുന്നത് ചെയ്യാറുള്ളത് പക്ഷെ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത് പിന്നെ ഇത് ചിരട്ടകളൊ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുള്ള ഉപകരണങ്ങളുണ്ടാകുമ്പോൾ കൃഷി കൃഷി സംബന്ധമായ മേഖലകളിൽ വളരെയധികം പുരോഗമനമാണുണ്ടാകുന്നത് ഇതിനെ ഈയൊരു വ്യവസായത്തെ ഗവണ്മെൻ്റ് തെങ്ങ് കൃഷിയൊക്കെ ഇത് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കൃഷിക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് മാത്രമല്ല നമ്മുടെ സാമ്പത്തിക വളർച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഈ ഈ മേഖലകൾക്കൊക്കെ നല്ല പുരോഗമനവും പുരോഗമനമുണ്ടാകുമെന്നാണ് തോന്നുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഗവണ്മെൻ്റ് മുൻകൈയ്യെടുക്കേണ്ടതാണ്